യാത്രകളിൽ ഞാൻ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് ഹെൽമെറ്റ് എടുക്കുക എന്നുള്ളതാണ് ഒരു റ്റൂ വീലറിനെ സംബന്ധിച്ച് ഹെൽമെറ്റ് എന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് മറ്റ് എന്തൊക്കെയില്ലെന്നു പറഞ്ഞാലും ഹെൽമെറ്റിൻ്റെ പ്രാധാന്യം വളരെയധികം വലുതാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ യാത്രകളിൽ ജാക്കറ്റും കൈകളെ സംരക്ഷിക്കാനായി ഗ്ലൗസും എടുക്കാറുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാരണവശാലും ടു വീലറ് ഹെൽമെറ്റില്ലാതെ ഉപയോഗിക്കാതിരിക്കുന്നതാവും ഏറ്റവും നല്ലത് അതുപോലെത്തന്നെ ബൈക്കിൽ പ്രധാനമായും കണ്ടുവരുന്ന ചില മെക്കാനിക്കൽ പ്രശ്നങ്ങൾ ഇന്ധന ടാങ്കിൽ വെള്ളം കയറുക ഇതുമൂലം വണ്ടി നന്നായിട്ട് മിസ്സിംങ്ങ് അടിക്കുക എന്നുള്ളതൊക്കെയാണ് ഇത് പൊതുവേ പെട്രോളിനൊപ്പം വെള്ളം മിക്സ് ആകുമ്പോൾ സംഭവിക്കാറുള്ള പ്രശ്നങ്ങളാണ് ഇവ മാക്സിമം നമുക്ക് മഴക്കാലങ്ങളിൽ ടാങ്കിൽ വെള്ളം ഇറങ്ങാത്ത വിധം ഏതെങ്കിലും തണലിൻ്റെ കീഴിൽ വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ ടാങ്കുകൾ ഒരു ചെറിയ പ്ലാസ്റ്റിക് പൊതി കൊണ്ട് മൂടാം മറ്റൊരു കംപ്ലൈൻറ് കാണപ്പെടാറുള്ളത് ബ്രേക്ക് ലൂസ് ആകുക എന്നുള്ളതാണ് ഡ്രം ബ്രേക്കുകളിലുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൈകളുപയോഗിച്ച് ബ്രേക്ക് മുറുക്കാൻ സാധിക്കും മെക്കാനിക്കൽ പാർട്സ് ഉള്ള ബ്രേക്ക് സെറ്റുകളാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ടൂളുകൾ വണ്ടികളിൽ തന്നെ ഉണ്ടാവും